യാത്രയെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലുള്ളതാണ് ഞാൻ യാത്ര ചെയ്യാനും യാത്രയെ ആസ്വദിക്കാനും അതിലോരോരോ കാര്യങ്ങളാസ്വദിക്കാനും എനിക്ക് വളരെ ഇഷ്ടമാണ് പിന്നീട് നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് സാധാരണ നമ്മൽ ചോദിച്ച് ആൾ അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചായിരിക്കും കൂടുതൽ നമ്മൾ യാത്ര ചെയ്യുന്നത് ചില സാഹചര്യങ്ങൾ നമുക്കിപ്പം അവർക്കുപോലും അറിയാൻ വഴി അറിയാൻ വയ്യാത്ത നമുക്ക് പരിചയമുള്ള ആൾക്കാർക്ക് വഴി അറിയാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ നമ്മളാദ്യം ആശ്രയിക്കുന്നത് ഗൂഗിൾ മാപ്പുകളെയാണ് അല്ലെങ്കിൽ ചില ട്രാവൽ ആപ്പുകളെയാണ് അങ്ങനെ ഗൂഗിൾ മാപ്പുകളെ ആശ്രയിക്കുമ്പൊഴും ഇപ്പോൾ നമക്കിവടെ നിന്ന് കണ്ണൂർ വരെയൊരു യാത്ര പോണം അല്ലെങ്കിൽ കോഴിക്കോട് വരെ ഒരു യാത്ര പോണം അവിടെയൊക്കെത്തന്നെ പല സ്ഥലങ്ങളും നമുക്കറിയാൻ വയ്യാത്ത നമുക്ക് പോവേണ്ടത് തന്നെ നമുക്ക് അറിയാൻ വയ്യാത്ത പല സ്ഥലങ്ങളും കാണും അപ്പം നമ്മൾ ചിലപ്പം ഗൂഗിളിൽ സേർച്ച് ചെയ്ത് അല്ലെങ്കിൽ ട്രാവൽ മാപ്പുകൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ ആ സ്ഥലത്ത് എത്തിച്ചേർന്നത് അതിനൊക്കെ ഒത്തിരി ഒത്തിരി ഒത്തിരി ട്രാവൽ ആപ്പുകൾ അല്ലെങ്കിൽ സൈറ്റുകൾ ഗൂഗിൾ മാപ്പുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് പിന്നീട് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിലിപ്പം എക്സാംസ്സ് പി എസ് സി എക്സാംസ്സ് തന്നെ വയ്ക്കുമ്പോൾ നമുക്ക് ചിലപ്പം ട്രിവാണ്ട്രത്തായിരിക്കും ചിലപ്പം കോഴിക്കോടായിരിക്കും ചിലപ്പം കാസർഗോഡായിരിക്കും അവിടെയൊക്കെ ഏത് നല്ല ഇടുങ്ങിയ സ്ഥലങ്ങളിലുള്ള സ്കൂളുകളിലായിരിക്കും നമുക്ക് മിക്കവാറും എക്സാംസുള്ളത് അപ്പം ഏത് സ്ഥലത്താണൊ എവിടെയാണെന്നൊ പോലും അറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ മാപ്പിൽ സെർച്ച് ചെയ്ത് എഴുതും നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ പറ്റും